മൃഗ വളർത്തലിൽ സാധാരണയായി ഉപയോഗിക്കുന്ന തീറ്റകളെന്നു പറഞ്ഞാല് നമ്മള് പണ്ടത്തെ കാലത്ത് ഇപ്പോഴും വൈക്കോല് പുല്ല് ചെത്തി കൊടുക്കുക ഇതൊക്കെയാണ് പശുവിന് ആട് അവർക്കൊക്കെ ക് ആടിനാണേൽ ഈ പ്ലാവിൻ്റെ തോല് ഒക്കെ ഒടിച്ച് ഇട്ട് അതിന് ഏറ്റവും ഉള്ള ഭക്ഷണം ആടിന് അതാണെന്നാണു പറയുന്നത് കൂടാതെ ഇതേ പോലെ പശുവിനൊക്കെ ആണെങ്കിലും നമ്മള് വളരുന്ന നല്ല പച്ച പുല്ല് വൈക്കോല് ഇതെല്ലാം നമ്മള് അവർക്ക് തീറ്റയായിട്ട് കൊടുക്കാ പണ്ടത് തന്നെ ആയിരുന്നു ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത് അന്നാ കിട്ടുന്ന പാലിന് ഗുണങ്ങളുമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കില് പുതിയ കൃത്രിമ ആഹാരങ്ങളും പശുവിന് കൊടുത്തു തുടങ്ങി കൂടുതൽ പാല് കിട്ടാൻ വേണ്ടിയിട്ടും പശു ആണേലും കൃത്രിമമായിട്ടുള്ള പണ്ടത്തെ ഇനം പശുക്കളൊന്നുമല്ല ഇപ്പോള് നമുക്കുള്ളത് അപ്പോള് ആ വ്യത്യാസത്തിൽ അവര്ടെ ആഹാര രീതിയിലും വ്യത്യാസമുണ്ട് കാലിത്തീറ്റകള് തന്നെ കിട്ടുന്ന ഓക്കേ കാലിത്തീറ്റ അങ്ങനെ കാലിത്തീറ്റായിട്ട് തന്നെ പുറത്തുനിന്ന് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ആഹാരങ്ങള് ഇപ്പോള് മേടിച്ചുകൊടുക്കാറുണ്ട് കൂടാതെ ഈ പറഞ്ഞ ചോളം സോയാബീൻ്റെ കഷണങ്ങൾ പയറ് വർഗങ്ങളുടെ ചെടിയും പിന്നെ ഉണക്ക പുല്ലുമൊക്കെ പശുവിന് ആഹാരമായിട്ട് കൊടുക്കാറുണ്ട് അപ്പോള് ഇതുവൊക്കെ ഇതുമൊക്കെ അവർക്ക് കൂടുതലായിട്ട് പിന്നെ ഭക്ഷണത്തിന് നന്നായിട്ട് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ പണ്ട് മൃഗങ്ങള്ക്കൊക്കെ അസുഖങ്ങള് വരുന്നതു വരെ കുറവായിരുന്നു കാരണം അന്നത്തെ ഭക്ഷണ രീതികള് തന്നെയാണ് അപ്പോഴാ മൃഗങ്ങക്ക് നമ്മുടെ നാട്ടില്ണ്ടാവുന്ന നാടൻ പച്ചപ്പുല്ലും അതൊക്കെ കഴിക്കുന്നതാണ് അവർക്കും ആരോഗ്യത്തിന് നല്ലതും ആ പാല് അവർ അങ്ങനെ അതുവഴി ആ ആ പശുവിൻ്റെ പാല് നമ്മള് കുടിക്കുന്നതിൽ നമ്മുടക്കും ആരോഗ്യത്തിന് ആ പാല് ശരിയായ രീതിയിൽ തന്നെ ഉപകരിക്കുമായിരുന്നു ഇന്ന് പക്ഷെ നമുക്കങ്ങനെ വിശ്വസിച്ച് അത്ര തന്നെ പോഷകം ആണോ ഈ കിട്ടുന്ന ഉൽപ്പന്നങ്ങളെന്ന് നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോള് കൂടുതൽ പാല് ലഭിക്കാനൊക്കെ നമ്മുടെ നാടൻ ഭക്ഷണ രീതിയില് ഇപ്പോള് ഓരോ നാടിൻ്റെ ആന്ന് ഇപ്പോള് ചക്ക് ചക്ക ഉണ്ടാകുന്ന സമയത്ത് ചക്കയൊക്കെ വെട്ടിയരിഞ്ഞിട്ട് പശുവിന് തിന്നാൻ കൊടുക്കുന്നെയൊരു ഓരോ സ്ഥലങ്ങളുണ്ടങ്ങനെ അത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴാ ചക്ക കൂടുതല് കഴിക്കാന് വെട്ടിയരിഞ്ഞയിൻ്റെ ചക്കയുടെ മടല് അങ്ങനുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതു വഴി പശുവിന് കൂടുതൽ പാലുല്പാദിപ്പിക്കാൻ പറ്റുമെന്നുള്ളയൊരു രീതി ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് ആ കാലത്ത് അതൊക്കെ തന്നെയാണ് പശുവിന് കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് പശുവാണേലും ആടാണേലും പിന്നെ അതുപോലെ അന്ന് പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനം അതായത് നമ്മള് പുളിയരി പുളി ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല പുളിയുടെ അരി വെച്ച് ഉണക്കിപ്പൊടിച്ച് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കെുഴച്ചു കൊടുക്കുന്ന ഒരു രീതി അന്ന് ഉണ്ടായിരുന്നു പശുവിന് അത് ഇന്നത്തെ കാലത്ത് ഇന്ന് ഇത് റെഡിമെയ്ഡായിട്ട് കാലിത്തീറ്റ എന്നും പറഞ്ഞ് പുറത്തുനിന്നു മേടിച്ച് അത് കലക്കി കൊടുക്കുകയാണു ചെയ്യുന്നത് പണ്ട് ഇങ്ങനെ ചെ തേങ്ങ തേങ്ങാപ്പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അങ്ങനെ എന്തിൻറ്റെയും അതിന്റെ എല്ലാത്തിൻ്റെയും ഈ ഇത് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ചൊക്കെടുത്ത് അത് പിണ്ണാക്കാക്കി മാ പിണ്ണാക്ക് അത് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പശുവിന് കാടിയാക്കി കൊടുക്കുന്നൊരു രീതിയുണ്ടായിരുന്നു അതുപോലെ നല്ല പച്ചപ്പുല്ലുള്ള പുല്ലുളെടത്ത്ന്നെ പശുവിനെ അഴിച്ച് അവിടെ പുല്ല് തിന്നാൻ വേണ്ടി കെട്ടി അവിടെത്തന്നെ അതിന് നല്ല പച്ചപ്പുല്ല് തന്നെ വളം തിന്ന് വളരുന്ന ഒരു രീതിയായിരുന്നു രീതിയാണ് അതിൻറ്റെ ആരോഗ്യകരമായ ഭക്ഷണ രീതി എന്ന് പറയുന്നത് തന്നെ അങ്ങനെ മൃഗങ്ങളെ പിന്നെ അതുപോലെ തന്നെ ആടിൻ്റെ പാല് അതും നല്ല ഗുണമുള്ളത് തന്നെയാണ് അതിന് നമ്മള് നാ ഈ പച് ഇത് പച്ചപ്പുല്ലുകള് തന്നെ അതിന് തീറ്റയായിട്ടുതന്നെ കൊടുത്ത് അതേയത് പ്ലാവിൻ്റെ തോലൊക്കെ ഒടിച്ച് ആടിന് ഭക്ഷണമായിട്ട് കൊടുക്കാറുണ്ട് അതാണ് ആടിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമെന്നു തന്നെ പറയപ്പെടുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ പശുവും ആടും തന്നല്ല ഇപ്പോള് കോഴികളൊക്കെയാണേലും ഇപ്പോഴത്തെ ഇപ്പോള് വളർത്തുന്ന കോഴിക്കൾക്കണേലും പുല്ല് തിന്നാനായിട്ട് വലിയ ഇഷ് ഇഷ്ടമാണ് ആ പുല്ല് തിന്നുന്നതിലൂടെ നല്ല ഗുണമാണ് ആ മുട്ടയ്ക്കെന്നാണ് ഇപ്പോള് പൊതുവേ അറിയപ്പെടുന്നത് ആരോഗ്യ ആരോഗ്യപരമായി അത് നമുക്കും ആ മുട്ട കഴിക്കുന്നതിലൂടെ കാൽസ്യം കൂടുതല് നമുക്കും കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോള് പറയപ്പെടുന്നത് അങ്ങനെ നല്ല രീതിയില് പിന്നെ നമുക്ക് മൃഗങ്ങളെ പരിപാലിക്കാനായിട്ട് ഈ ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്ക കൊടുത്ത് നല്ല രീതിയിലാരോഗ്യമുള്ള മൃഗങ്ങളെ വളർത്താനും അവര് തരുന്ന ഉല്പന്നങ്ങള് നമുക്കരോഗ്യകരമായി നമുക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്